ഇപ്പോൾ നമ്മുടെ നാട്ടിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്തു കൊണ്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ എജ്യുക്കേഷൻ സിസ്റ്റം അതായത് കേരളത്തിലാണെങ്കിലും പിന്നെ എന്താ ഇന്ത്യയിലാണെങ്കിലും എജ്യുക്കേഷൻ സിസ്റ്റം നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ എന്താ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒര് എജ്യുക്കേഷൻ സിസ്റ്റം അതാണോ നമുക്ക് എനിയും വേണ്ടത് അതില്ലെങ്കിൽ എന്താ ഇനി പുതിയതായിട്ടെന്തെങ്കിലും മാറ്റങ്ങള് വരുത്തണോ ഇതെല്ലാം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് ചർച്ച ചെയ്ത് കൊണ്ടുള്ളൊരു കാര്യാമാണ് അപ്പോൾ അതില് എന്താ കുറച്ച് കാലങ്ങളായിട്ട് മെയിനായിട്ട് വന്നു കൊണ്ടിരുന്ന ഒരു കാര്യം സെക്സ് എജ്യുക്കേഷൻ നമ്മുടെ സിലബസില് നമ്മുടെ കുട്ടികളുടെ സിലബസില് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അതെല്ലാതെ ആ ഒര് ടോപ്പിക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാല് മൊത്തത്തിലായിട്ടുള്ളൊരു സിസ്റ്റം എജ്യുക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ ഇപ്പമുള്ളൊരു ജനറേഷന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലയെന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലയെന്ന് വെച്ചാല് അതായത് ആ ഒരു സിസ്റ്റം ശരിയല്ലയെന്നുള്ളത് കാരണം ഒരുപാട് കാര്യങ്ങളില് നമ്മുടെ നാടും എന്താ ലിബറലായിക്കൊണ്ടുണ്ട് ലിബറലായി കൊണ്ടുണ്ടെന്ന് മാത്രമല്ല ചെയ്ഞ്ചായി ഒരുപാട് ഫോർവേഡഡായിട്ടുണ്ട് പക്ഷെ എജ്യുക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴും പണ്ടത്തെ പോലെയാണ് അതായത് എന്താ പണ്ട് ഗുരുകുലത്തില് പോയി പഠിച്ചു കൊണ്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം അതായത് ഇരുത്തി പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം പണ്ട് രാജഭരണ കാലത്ത് ഉണ്ടായ കാര്യമാന്ന് അതായതെന്താ രാജാവിൻ്റെ മക്കള് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം വീട് വിട്ട് നിന്ന് ഒരു സ്ഥലത്ത് പോയി ഒരു ഗുരുവിൻ്റെ എന്താ അണ്ടറിൽ കുറേ കാലം ഇങ്ങനെ പഠിക്കുന്ന് ആ ഒരു ഗുരുകുല സിസ്റ്റം അതാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവര് ഡെയിലി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി വരുന്നു ആ ഒര് കാര്യം മാത്രമേ ഉള്ളു അതല്ലാതെ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊരു ഗുരുകുല സിസ്റ്റം പോലെയാണ് ഇരുത്തി പഠിപ്പിക്കുന്ന സിസ്റ്റം പല കാര്യങ്ങളും നമ്മുടെ നാട്ടില് മാറി വരുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യം മാത്രം അതേപോലെ റിമൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പണ്ട് ഉണ്ടായ കുറേ കാര്യങ്ങള് ഇപ്പം മാറികൊണ്ടുണ്ട് പക്ഷെ എജ്യുക്കേഷൻ സിസ്റ്റം മാത്രം മാറുന്നില്ല ശരിക്ക് പറഞ്ഞാലാദ്യം മാറണ്ട ഒരു കാര്യമാണ് എജ്യുക്കേഷൻ സിസ്റ്റം അതായത് നമ്മളേറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതാണ് അതായത് നല്ല പൗരന്മാർ വേണമെന്നൊക്കെ പറയുന്നത് എന്താ നമ്മുടെ എജ്യുക്കേഷൻ സിസ്റ്റത്തിലൂടെ അതില് വരുത്തുന്ന മാറ്റത്തിലൂടെ വേണം നമ്മള് അതുണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ എന്താ ഇവിടെ നമ്മുടെ സിലബസില് ഏറ്റവും കൂടുതല് അല്ലെങ്കിൽ ഏത് ക്ലാസാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിലബസ് ആണെങ്കിലും നമ്മള് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് ഹിസ്റ്ററി എന്ന് വച്ചാ എന്താ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് കേരളത്തിലെ കുട്ടികളാണെങ്കില് കേരള ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലം എന്താ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് പണ്ട് എന്ത് നടന്നു എന്നുള്ളതാണ് അതായത് പണ്ട് ആരൊക്കെ ഓരോ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അവരിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവർ എങ്ങനെ ചെയ്തു ജസ്റ്റ് നമ്മൾക്ക് വേണ്ടത് എന്താ നമ്മുടെ ഹിസ്റ്ററി നമ്മൾ ഈ ഈ ഈ ഒരു ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കാൻ കാരണം എന്താ എന്താ ഫ്രീഡം ഫൈയ്റ്റേസിനെയൊക്കെ പഠിപ്പിക്കുന്നത് ഓക്കെ അതായത് ഓരോ ആൾക്കാരെ വെച്ച് ഓരോ മൊഡ്യൂൾ ഹിസ്റ്ററി അങ്ങനെയാണ് ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടുള്ളത് അതായത് ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അത് കുറേ എന്താ എക്സ്പാൻറ് ചെയ്ത് പഠിപ്പിക്കും എന്നുള്ളതാണ് പക്ഷെ ശരിക്കും നമ്മൾ ജസ്റ്റ് നമ്മുടെ ട്രഡീഷൻ എന്താണെന്നറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എന്താ അല്ലെങ്കിൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ എങ്ങനെ ഇവിടം വരെ എത്തി ആ ഒരു കാര്യം മാത്രം നമ്മള് പഠിപ്പിച്ച് കൊടുത്താൽ മതി അല്ലാതെ ഒരു എന്താ ഒരു ഹിസ്റ്ററിയില് മൊത്തം ഓരോ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അവരെഴുതിയ ബുക്കിനെ ഫോക്കസ് ചെയ്ത് അത്രയും കാര്യമായിട്ടൊന്നും നമുക്ക് ഹിസ്റ്ററി പഠിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ ഇപ്പം ഡിഗ്രി പി ജി പഠിക്കുന്ന കുട്ടികള് വരെ എന്താ ഇതൊരു കണ്ടിന്യൂസായിട്ട് പഠിച്ചുകൊണ്ടുള്ളതാണ് പത്താം ക്ലാസ്സിൽ എന്താണ് ഹിസ്റ്ററി പഠിച്ചത് സെയിം ആണ് പ്ലസ് ടു പഠിക്കുന്നത് സെയിമാണ് ഡിഗ്രി പഠിക്കുന്നത് പി ജിയില് പഠിക്കുന്ന കുട്ടികള് വരെ യു ക്കെയിൽ എന്ത് നടന്നു അല്ലെങ്കിൽ യു എസ് എയിൽ എന്ത് നടന്നു അതാണ് ഇപ്പോഴും പഠിച്ചു കൊണ്ടുള്ളത് അതല്ലാണ്ട് ഇനി നമുക്ക് എന്താണോ ആവശ്യം അതായത് കാൽ കാര്യങ്ങള് കുറേ കാര്യങ്ങള് മാറി മാറി വന്നു അതുപോലെയല്ല ഇപ്പൊന്നുള്ളത് കാര്യങ്ങള് മാറി പക്ഷെ ആ പഠിപ്പിക്കുന്ന സിസ്റ്റം കൂടി അതിൻ്റെ ഒന്നിച്ച് മാറ്റണം ഇപ്പോൾ എന്താ കുറച്ച് കാലം കഴിഞ്ഞാല് ഒരിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ നമ്മുടെ നാട് എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങള് പുതുതായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് ഫോർവേഡഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് എന്താ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ചിന്തിക്കാൻ പിന്നെയൊരു കാര്യം വെച്ചാല് ഈ അദ്ധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാര് അവരെന്ന് പറയുന്നത് സത്യത്തില് എന്താ എന്താണ് അവരുടെ വ്യൂ ഇത് ഓരോ കാര്യത്തിലും അവരുടെ വ്യൂ എന്താണ് അതാണ് ഇവര് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു മതത്തിൻ്റെ കാര്യമാണെങ്കില് പല ടീച്ചേഴ്സുണ്ടാകും ചില ആൾക്കാര് മതത്തിൽ വിശ്വസിക്കുന്ന ടീച്ചേഴ്സുണ്ടാകും ചില ആൾക്കാര് മതം ജാതിയില്ല മതമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും എന്താ അവരുടെ പേഴ്സണൽ വ്യൂ എന്താണോ അതാണ് അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ക്ലാസ്സില് എന്താ പത്താം ക്ലാസ്സിന് നാല് ഡിവിഷൻ ഉണ്ടെങ്കില് നാല് ഡിവിഷനിലും വേറെ വേറെ ടീച്ചേഴ്സാകുമ്പോൾ ആ ഒരു മൊത്തം ബാച്ചിലെ കുട്ടികൾക്ക് വേറെ വേറെ വ്യൂ ആയിരിക്കും ഓരോ കാര്യത്തിനോടും ഉണ്ടാവുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ എന്താ വീട് കഴിഞ്ഞാല് പിന്നെ കുട്ടികള് പോകുന്നത് സ്കൂളിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യം പിന്നെ സ്കൂളില് പഠിച്ച കാര്യം അതാണ് അവര് കൂടുതലായിട്ട് എപ്പോഴും ഓർക്കുന്നത് അല്ലെങ്കിൽ അവര് ഫോളോ ചെയ്യുന്നത് അതാണ് സ്കൂളിൽ പഠിപ്പിച്ച കാര്യം അവരുടെ ലൈഫ് ലോങ്ങ് എപ്പോഴും അവരത് അവരെ ഇൻഫ്ലുവെൻസ് ചെയ്യിക്കും ഇപ്പോൾ ചില ടീച്ചേഴ്സാണെങ്കിൽ മതം വേണം അല്ലെങ്കിൽ നമുക്ക് ജാതി വേണം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കില് അതേപോലെതന്നെ കുട്ടികള് അത് ഫോളോ ചെയ്യും പക്ഷെ എന്താ കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്നപോലെ പഠിപ്പിക്കണം ഇപ്പോൾ എന്താ മതത്തിൻ്റെ നല്ല വശം മോശം വശം അതൊക്കെ പറഞ്ഞു കൊടുത്ത് അതെന്താ നിങ്ങക്കൾത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്നുള്ള പോലെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കില് നമ്മളെന്താണോ പറഞ്ഞു കൊടുത്തത് അതിനനുസരിച്ച് അവര് ചൂസ് ചെയ്ത് അവര് അവരുടെ ഒരു ക്യാരക്റ്റർ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി അവര് ബിൽഡ് ചെയ്യും അതായത് എന്താണോ വേണ്ടത് കൃത്യമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്താണ് കുട്ടികൾക്ക് വേണ്ടത് ഫ്യുച്ചറിലേക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ പ്രെസൻ്റിൽ ഒരു ഒരു വർഷം കഴിഞ്ഞാലുള്ളവസ്ഥ എന്താണ് അതിനനുസരിച്ച് ഒരു സിലബസ് ഉണ്ടാക്കണം ഒരു സിലബസ് മാറ്റുന്നത് ഈ ഒര് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഒര് സിലബസ് മാറ്റുന്നത് അങ്ങനെയല്ല പക്ഷെ കാര്യങ്ങള് ഓരോ വർഷവും മാറി കൊണ്ടുണ്ട് അതിനനുസരിച്ച് സിലബസ് മാറ്റം വേണം ചില സമയത്ത് എന്താ നടക്കുന്നത് വെച്ചാല് നമ്മൾ ഒരു സിലബസ് പഠിച്ചു ആ ഒരു സിലബസ് പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് സിലബസ് മാറി പക്ഷേ പിന്നേയും അടുത്ത പ്രാവശ്യം വരുന്നത് സെയിം സിലബസായിരിക്കും പിന്നെയുള്ള കാര്യം എന്താവെച്ചാല് പൊളിറ്റിക്സും എക്കണോമിക്സ് ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നുള്ളതാണ് അതായത് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമെന്ന് പറയുന്നത് മൊത്തത്തിൽ മാറിമറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് അതായത് രാഷ്ട്രീയവും മതവുമെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ളത് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണം എന്താണ് ശരിക്കുള്ള രാഷ്ട്രീയം അല്ലെങ്കില് എന്താണ് മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മതത്തിനെ അപ്പ്രോച്ച് ചെയ്യേണ്ടത് രാഷ്രിയത്തിനെ അപ്പ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കില് ആ സിലബസില് കൃത്യമായിട്ട് പൊളിറ്റിക്സ് എന്താണ് എക്കണോമിക്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതില് വേണം പിന്നെ കുറേ നോംസ് കുടുതൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലാണ്ട് സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള പോലത്തെ കാര്യങ്ങള് നിങ്ങളങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയാണെങ്കില് ഇങ്ങനെയായിരിക്കും അങ്ങനത്തെ കുറേ നോംസ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിന്നെ കൂടുതല് പ്രോസ്താഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്